മറ്റ് ഗ്രഹങ്ങളിൽ ബാഹ്യ ജീവനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല മനുഷ്യനെ ഏറ്റവും ജീവിക്കാൻ പറ്റിയത് നമ്മളുടെ ഭൂമിന്നുള്ള ഗ്രഹം തന്നെയാണ് ഭൂമിലാവുമ്പോൾ വെള്ളമുണ്ട് വായുണ്ട് നമുക്ക് നമുക്ക് ജീവിക്കാനുള്ള എല്ലാം നമ്മുടെ ഭൂമിയിലുണ്ട് ഭൂമി തന്നെയാണ് നമുക്ക് ഏറ്റവും വാസ യോഗ്യമായിട്ടുള്ളത് ഓക്സിജനും വേണ്ടത്ര ഓക്സിജനും വെള്ളം കിട്ടുന്നതും ഭൂമിയിലാണ് നമ്മളുടെ മരങ്ങളും കൃഷികളും നമുക്കെല്ലാം ഉള്ളത് ഭൂമിയിലാന്ന് അവിടെ തന്നെയാന്ന് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് എന്നാലും ചൊവ്വയിൽ നേരിയ തോതിൽ വെള്ളമുണ്ടെന്ന് ഓക്സിജൻ ഉണ്ടെന്ന് കണ്ടെത്തിയത് ഒരു നല്ല നല്ല ഒരു കണ്ടത്തലായിട്ട് തോന്നുന്ന് കൂടുതൽ ഇനിയും ഭാവിയിൽ കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടാവട്ടെ മനുഷ്യനവിടെ താമസിക്കാനും ഉള്ള ഒരു ഇത് ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു എ എന്നാലും നമുക്ക് ഇപ്പോൾ നമുക്ക് ഇപ്പം മനുഷ്യന് വാസയോഗ്യമായിട്ട് തോന്നുന്നത് ഭൂമി മാത്രമാണ് നമ്മൾ ഭൂമിയിൽ നമുക്ക് നമുക്കുള്ളതെല്ലാം നമുക്ക് നന്നായിട്ട് ശ്വസിക്കാനും നമുക്ക് ഉപയോഗത്തിലുള്ള വെള്ളവും എല്ലാം നമുക്കുണ്ട് മരങ്ങളും പച്ചപ്പും പച്ചപ്പും കാര്യങ്ങളും എല്ലാം നമുക്ക് ഭൂമിയിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് മനുഷ്യന് വാസ യോഗ്യയായിട്ടുള്ളത് ഭൂമി തന്നെയാന്ന്